കൃഷിക്കായി ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ മെയിനായിട്ടും കൂടുതലായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാല കാലഘട്ടങ്ങളില് മരുന്നടിക്കാൻ പവർ സ്പെയർ കളവെട്ടാന് കളവെട്ടി മെഷിൻ വെ അതുപോലെതന്നെ മണ്ണിളക്കാനായിട്ട് ജെ സി ബി ഹിറ്റാച്ചി പിന്നെ തേയില കൊളുന്തെടുക്കാനായിട്ട് ആണെങ്കിലും എന്നാ അതിനുള്ള ഒരു മെഷിന് പിന്നെ മുളക് മെതിക്കാനുള്ള മുളക് മെതിക്കുന്ന മെഷിന് ഏലക്ക ഉണങ്ങാനുള്ള കാർഡമം ഡ്രയറുകൾ നിസാരം എല്ലാ മെഷീനുകളിലും പ്രോസസ്സ് ചെയ്ത് തിരിച്ച് മെഷിനിൽ ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാനുള്ള പ്രോസസിങ് മെഷിന് ഏലക്ക ഗ്രേഡ് തിരിക്കാനായിട്ടാണേലും മറ്റുള്ളതാണേലും മ ഇതാണേലും മാങ്ങകളുടെ മിശറ് ഓരോരോ കാര്യങ്ങളിത് ചെയ്യാനായിട്ട് ഉള്ളതായ കാർഷിക മേഖലേലാനാ അനാവധി അനേകവധി അനേകവായിരങ്ങള് മെഷീനറികൾ ഉണ്ട് ഇന്നത്തെ കാലത്ത് നിസാരം മണ്ണ് കുഴിക്കാനാണേല് ഒരു കുഴിയെടുക്കാനാണേൽ ഒരു കുഴി കുഴിക്കാൻ ഒരു കുഴി കുഴിക്കാനാണെന്നൊണ്ടെങ്കിലൊരു മാന്റെ ആവശ്യമില്ല ട്രില്ലറ് പോലൊള്ളൊരു സംഭവം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് ചെയ്യാന് പറ്റും കാർഷിക മേഖലയിലാണേലും വളരെയധികം കാര്യങ്ങളാണ് മെഷിനറികൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്